ഞാൻ മൂന്നു ബർണർ ഉള്ള ഒരു ഗ്യാസ് അടുപ്പായിരുന്നു ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗ്ലാസ് ടോപ്പ് ഉള്ള ഒരു ഗ്യാസ് അടുപ്പ് വേണം എന്നുള്ളത് അപ്പോൾ പഴയത് ചീത്തയാവുകയും അതേത്തുടർന്നാണ് ഒരുപാട് സൈറ്റുകൾ സെർച്ച് ചെയ്തിട്ടാണ് ഈ സൈറ്റിൽ നിന്നൊരു ഗ്യാസ് അടുപ്പ് ഓഡർ ചെയ്തത് ഗ്യാസ് വേണം അതും ഗ്ലാസ് ടോപ്പ് കൂടിയുള്ള ഒരെണ്ണം വേണം എന്നുള്ളത് വളരെ ആഗ്രഹമായിരുന്നു നല്ല ഡിസൈനും എൻ്റെ കിച്ചനു മാച്ച് ചെയ്യുന്ന കളറിലുള്ള ഒരെണ്ണം ഓഡർ ചെയ്തു വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പന്ത്രണ്ടാം തീയ്യതി എത്താം എന്ന് പറഞ്ഞു പക്ഷേ അത് എത്തിയത് അതിനെക്കാട്ടിലും ലേറ്റായി പതിനാറാം തീയതിയാണ് ഡെലിവേഡ് ആയത് പക്ഷേ ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അതിൻറെ സൈഡിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു പൊട്ടലും ഉണ്ടായിരുന്നു അത് വളരെയധികം നിരാശപ്പെടുത്തി ക്യാഷും നഷ്ടമായി ഒന്നുകിൽ ഈ സാധനം റിട്ടേൺ ചെയ്തിട്ട് പുതിയൊരു ഗ്യാസടുപ്പ് ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക ചെയ്യണ്ടതാണ് വീട്ടുകാരുടേതിൽനിന്ന് ഒത്തിരി വഴക്ക് കേൾക്കുകയും ചെയ്തു മാത്രമല്ല അതിൻ്റെ ട്യൂബ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഹോൾ പോലെയുണ്ടായിരുന്നു അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് റിസ്കാണ് അപ്പോൾ ദയവായി അത് ഉടനെ തന്നെ മാറ്റിത്തരണം